നൃത്തം ചെയ്യുന്നത് ആ വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മൾ ജീവിതം മാറ്റുന്നത് അതൊരു വ്യായാമത്തിലൂടെയാണ് ഏറ്റവും കൂടുതലും നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന സ്വാധീനിക്കുന്നൊരു കാര്യം അപ്പോൾ അതിനു നമ്മൾ നൃത്തത്തെ നമ്മൾ ഏറ്റെടുക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ് ഓരോ തവണയും നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് നമ്മളെ ബാധിക്കാതെ വരും ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നാലും പോലും ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മറക്കാൻ നൃത്തമെന്ന വഴിയിൽ നമുക്ക് തിരഞ്ഞെടുക്കുന്നതു വളരെ നല്ലൊരു കാ കാര്യമാണ് നൃത്തം ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതലും ആരോഗ്യം നമുക്ക് കിട്ടുന്നതാണ് അതു പോലെ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതും അങ്ങനത്തെ ചിന്തകളും നമുക്ക് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് പല രീതിയിലുള്ള നൃത്തങ്ങളുണ്ട് ഭാരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി അതുപോലെ തന്നെ നാടോടി നൃത്തം പിന്നേ മറ്റു പല നൃത്തങ്ങളും ഉണ്ട് ഏതു നൃത്തം നമ്മൾ തിരഞ്ഞെടുത്താലും അതിൻറ്റേതായ ആ പോസിറ്റീവാണ് നമുക്ക് കിട്ടുന്നത് നല്ല ചിന്തകൾ മാത്രമായിരിക്കും നൃത്തം തിരഞ്ഞെടുക്കുന്നവർക്ക് കിട്ടുക അതുപോലെ തന്നെ നൃത്തത്തിലൂടെ പല രീതിയിലും നമുക്ക് സന്തോഷങ്ങൾ നമുക്ക് കിട്ടും ഒരുപാട് നേരം നേരം നമ്മൾ സമയം പോലും നമുക്കറിയാനേ പറ്റത്തില്ല നൃത്തം നമുക്ക് ഏറ്റെടുക്കുമ്പം ഓരോ ഓരോത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഏതു നൃത്തം വേണമെങ്കിലും എ എടുക്കേണ്ടെന്ന് പലതാ പല രീതിയിള്ള നൃത്തങ്ങളാണ് പല രീതിയിലുള്ള നൃത്തങ്ങളാണ് ഉള്ളത് ഭാരതനാട്യം എടു എടുക്കുകയാണെങ്കിൽ അതും ഓരോത്തരുടെ ഇഷ്ടം അതുപോലെ തന്നെ നാടോടി നൃത്തം പോലെയുള്ള നൃത്തമെടുക്കുകയാണെങ്കിൽ അതും ഓരോത്തരുടെ ഇഷ്ടം എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നൃത്തമാണ് ഭരതനാട്യം അതുപോലെ തന്നെ നാടോടി നൃത്തവും ഭാരതനാട്യം നമുക്കാണെങ്കിൽ കൂടുതലും പല രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നൃത്തമാണ് അതു പോലെ തന്നെ മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും നമുക്ക് പല വേദികളിൽ നമുക്ക് അതിനെ അവതരിപ്പിക്കാം അതുപോലെതന്നെ സ്കൂളുകളിലാണെങ്കിലും നമുക്ക് അവതരിപ്പിക്കാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ന സ്വന്തമായിട്ടുള്ളൊരു ഒരു ആ വാ നമുക്ക് ജോലിയും നമുക്ക് ചെയ്യാം മറ്റുള്ളവരെ താത്പര്യമുള്ളവരെ പഠിപ്പിക്കാനും നമുക്ക് സാധിക്കും അവർ നമുക്ക് മറ്റുള്ളവരെ നമ്മൾ അവരെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ അവരെ പഠിപ്പിക്കുമ്പം അവർക്ക് കിട്ടുന്ന സന്തോഷവും അതു നമ്മുടെ സന്തോഷം ആയിട്ടാണ് നമ്മൾ കാണപ്പെടേണ്ടത് പല രീതിയിലുള്ള പല രീതിയിലുള്ള ഇ ഇതു പഠിക്കുമ്പം നമുക്ക് പല രീതിയിലുള്ള കഷ്ടപ്പാടുകളുണ്ട് പക്ഷേ എന്നാലും ആ കഷ്ടപ്പാടിലൂടെ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളും നേട്ടങ്ങളും നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഈ നേട്ടങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് അതിലൂടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനമായിട്ട് നമുക്ക് നിൽക്കാം